പാലക്കാട് ജില്ലയില് ലഭ്യമായ പ്രാദേശിക ഭവനം എന്നു ചോദിച്ചാൽ ഒരുപാടുണ്ട് അപ്പാർട്ട്മെന്റുകൾ ഉണ്ട് പിന്നെ ഫ്ലാറ്റുകൾ ഉണ്ട് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെങ്കിൽ ചെറിയ ചെറിയ ലോക്കൽ വീടുകളുണ്ട് എന്നു പറയുമ്പോൾ ലോക്കൽ വീട് എന്നു പറയുമ്പോ അയിനു വാടക ഒരു മൂവായിരം ടു മൂവായിരം അയ്യായിരം ടു എട്ടായിരം വരും ഒരു അപ്പാർട്മെൻറ്റോക്കെയാണെങ്കിൽ പത്തു ടു പതിനഞ്ച് ആ ലെവലൊക്കെ വരും ഫ്ലാറ്റ് ആണെങ്കിലും ഇനി സിറ്റി ഏരിയകളാണെങ്കിൽ കൊറച്ചും കൂടിയും കൂടും കാരണം സിറ്റി പ്രദേശങ്ങളിള് എല്ലാ മിക്ക സൗകര്യങ്ങളും ലഭ്യമാണ് ആളുകളൊക്കെ പരമാവധി നല്ല രീതിയിൽ ആണ് ജീവിക്കാൻ താമസിക്കുക പിന്നെ സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളാണ് സൗകര്യങ്ങൾക്കാണെങ്കിൽ അത്യാവശ്യം വാടക വരും സ്കൂള് അതേപോലെ ഓഫീസുകൾ ഇതിനടുത്തുള്ളവരൊഴികയും അത്യാവശ്യം വാടകയൊക്കെ ഉണ്ടാവും